ഹിന്ദു മതത്തിന്റെ വിഷുവെനിക്ക് ഭയങ്കര ആക മായിട്ടെന്നെ ആകര്ഷിച്ചിട്ടുണ്ട് ഹിന്ദു ജന ഹിന്ദുക്കള് എന്നാ കണി വയ്ക്കുക എല്ലാവരും കൂടെക്കൂടി കണി കാണുക വിഷുക്കണി കൈനീട്ടം കൊടുക്കുക പിള്ളാരു ടെ പിള്ളാരെ അതിലേക്കാകര്ഷിക്കുക അവര്ക്കോരോ ഗിഫ്റ്റ് കൊടുക്കുക അതൊക്കെ വളരെയധികം ആഘോഷിച്ചിട്ടുണ്ട് അതനുസരിച്ചിപ്പോള് ഞാന് ചെലപ്പോഴൊക്കെ പിള്ളാര്ക്ക് വിഷിവിന്റെ ദിവസമൊരു വിഷുക്കണിയായിട്ടെന്തെങ്കിലും കൈനീട്ടമായിട്ടെന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് അല്ലെങ്കില് വിഷുവിന് നല്ലെയൊരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഓണത്തിന് നല്ലെയൊരു ഗിഫ്റ്റ് ഓണ മ പട്ട് ഓണപ്പുടവ അങ്ങനെ എന്തെങ്കിലൊരു ഗിഫ്റ്റ് ആര്ക്കേലുമൊക്കെ കൊടുക്കാറുണ്ട് അതൊക്കെയാണ് ഞാനീ ഹിന്ദു മതത്തില്നിന്ന് എന്നെ ആകര്ഷിച്ചിട്ടുള്ള കാര്യങ്ങളും ഞാന് ചെയ്യുന്നതും പിന്നെ മുസ്ലീങ്ങളുടെയാണെങ്കില് റംദാന് റംസാന് വളരേ റിലീജിയസായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവരുടെ ഫാസ് നോയമ്പും കാര്യങ്ങളും അതിലേക്ക് ആള്ക്കാരെ അട്ട്രാക്റ്റെയ്യുന്നതും എന്നാല് മറ്റ അവര്ക്ക് ക്ഷീണം തോന്നാത്ത രീതിയില് വൈകീട്ട് ഭക്ഷണം കഴിക്കുന്നതും ആ ഒരു വെള്ളം പോലും കഴിക്കാതെ രാവിലെ മുതല് വൈകീട്ട് വരെ ഇരിക്കുന്ന സംഭവം വളരെയധികം ന നമ്മളെ ആകര്ഷിക്കാറുണ്ട് കാരണം ഞാനൊരു അറബി രാജ്യത്ത് ജീവിച്ചതും കൊണ്ടായാലും സൗദി അറേബ്യയില് ജീവിച്ചതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് നല്ലതായിട്ടെപ്പോഴും ഫീലീയ്തിട്ടുണ്ട് രാവിലെ ഒരു നിശ്ചിത ടൈം മുതല് വൈകീട്ട് നിശ്ചിത ടൈം വരെ അവര് ഫാസ്റ്റിങ്ങെടുത്തിരിക്കുന്നതും അതിനുശേഷം അവര് എല്ലാ സാധനങ്ങളും കഴിക്കുകയും ചെയ്യുന്നതും ഒക്കെ നല്ല വളരെ അട്ട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോള് അതനുസരിച്ച് ചിലപ്പോഴൊക്കെ ഞാനും ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട് ഇപ്പോഴെന്റെ ആരോഗ്യം ശരിയല്ലാത്തതുകാരണം ഞാന് കുറച്ച് ലേയിട്ടുണ്ട് ബാക്കി എന്നാലും രാവിലെ മുതല് വൈകിട്ട് വരെയും ഞാന് ഫാസ്റ്റിങ്ങെടുത്തിരിക്കാറുണ്ട്